അത് ശരി ആ എത്ര എമൗണ്ടാണ് നിങ്ങൽ ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷം രൂപ ഓക്കെ അപ്പം ഇവിടുത്തെ ലോണിന്റെ പിന്നെ പലിശയും കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും അല്ലേ ഓക്കെ നിങ്ങൾ എത്ര എത്ര സ്ഥലത്താണിത് ഈ കോഴി ഫാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾപ്പിന്നെ പലിശ നാല് ശതമാനം തൊട്ട് ഒമ്പതുണ്ട് പതിനൊന്ന് ശതമാനവും ഉണ്ട് നാല് ശതമാനത്തിൽ വയ്ക്കുന്നയായിരിക്കും ചെയ്യുന്നതായിരിക്കും ഉചിതം അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് ഡോക്യൂമെന്റസ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം ഏതു സ്ഥലത്താണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ആരുടെ പേരിലാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്ത് എന്താണ് നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതിപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ കുറേ സെഗ്മെന്റസുണ്ട് നമുക്കിതിൽത്തന്നെ ലോണേതൊക്കെ ഇതിൽ കിട്ടുന്നത് ഇപ്പം തൊഴിൽ സ്വയം തൊഴിലിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം ആ ഒരിതിൽ വയ്ക്കാം അല്ലേ ഓക്കെ അപ്പം ആധാർ കാർഡ് പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൊണ്ടുവാ നിങ്ങൾ എന്നാണ് വരാൻ പറ്റുക നേരിട്ടു വന്ന് സംസാരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഉചിതം അത് പിന്നെ വേറെയെന്തെങ്കിലും വേറെ ഇതുണ്ട് കേട്ടോ വേറെ സ്കീമൊക്കെയുണ്ട് നമുക്ക് പിന്നെ ലോണിന്റെ വേറെ വല്ല സ്കീമൊക്കെയുണ്ട് ഇതിപ്പോൾ രണ്ടു ലക്ഷം മതിയായിരിക്കും അല്ലേ അത് ശരി അപ്പം പിന്നെ നാല് ശതമാനം പലിശയിൽ ഇപ്പം രണ്ട് ലക്ഷം രൂപ പെട്ടെന്ന് ഡോക്യൂമെന്റസൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കിട്ടും

ആ അത് അതങ്ങനെ ചെയ്യുന്നതായിരിക്കും ഡോക്യൂമെന്റസൊക്കെ എടുത്ത് പിന്നെ ആധാർ കാർഡും പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ഒറ്റയ്ക്ക് ചെയ്യാനാണോ അതോ വേറെ ആരെങ്കിലുമുണ്ടോ പാർട്ണർ ആയിട്ട്

ഇപ്പോൾ നമ്മൾ ഒരു ഒരാളെന്തായാലും പിന്നെ സൈൻ ചെയ്യേണ്ടതൊക്കെ നമ്മളല്ലാതെ വേറൊരാളും കൂടി സൈൻ ചെയ്യണം അപ്പം ഒരു ഫോട്ടോയും ഒക്കെക്കൊണ്ട് പിന്നെ അടുത്ത ദിവസം തന്നെ വന്നാൽ മതി എന്നാൽ ശരി